വിദ്യാർത്ഥികൾക്ക് സൈക്കിളുകളും ലാപ്ടോപ്പും കൊടുക്കുന്നത് നല്ലത് തന്നെ പക്ഷേ അവരുടെ ക്ലാസുകള് എന്തൊക്കെയാണെന്ന് മനസിലാക്കിയിട്ട് വേണം കമ്പ്യൂട്ടറും സൈക്കിളും ഒക്കെ ലാപ്ടോപ്പുകള് കൊടുക്കാന് വേണ്ടിയിട്ട് കാരണം പ്ലസ് ടു വരെ നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഒരു ആവശ്യവും ഇല്ല എന്നാണ് എനിക്ക് എനിക്ക് ഒരു തോന്നുന്നത് പിന്നെ ഇനി കമ്പ്യൂട്ടര് പരമായിട്ട് പഠിക്കാന് പഠിക്കുന്നവര്ക്ക് വേണമെന്നുണ്ടെങ്കില് മാത്രം ലാപ്ടോപ്പുകള് വിതരണം ചെയ്യുക പിന്നെ സ്കൂള് സ്കൂള് ബസില് പോവാന് അത്രയ്ക്ക് ബുദ്ധിമുട്ട് ഉള്ളവര്ക്കും സൈക്കിള് കൊടുക്കണം എന്നാണ് ഞാന് ആവശ്യപ്പെടുന്നത് കാരണം സ്കൂള് ബസ് കൊടുക്കാന് ഫീസ് അവര്ക്ക് അവരെ കൊണ്ട് കഴിയാന് പറ്റാത്തവര്ക്കും വീട്ടിന് അടുത്ത് പോകുന്നവര്ക്കും ഒരു പരിധി വരെ നമുക്ക് പെട്രോളിന്റെ ക്ഷാമം കുറയ്ക്കുകയും സൈക്കിള് ഉപയോഗപ്പെടും എന്നാണ് ഞാന് ആഗ്രഹിക്കുന്നത് പിന്നെ ഇപ്പോഴേ എല്ലാ പിള്ളേര്ക്കും ലാപ്ടോപ് കൊടുക്കണമെന്ന് ഞാന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല